അതെ അതെ അതെയല്ലോ ആരാണ് ആണോ എന്നായിരുന്നു ചേച്ചി ആണോ ആ എന്തൊക്കെയായിരുന്നു വാങ്ങിച്ചത്

എങ്ങനെയാണ് മനസ്സിലായില്ല ഒന്നും കൂടെ പറയാവോ

ആ കുഴപ്പമില്ല ആ ബില്ലൊണ്ടോ ചേച്ചിയുടെ കയ്യില് ആ ആ

ആ ആ ഫുഡ് ഉപ ഉപയോഗിച്ചിട്ടില്ലല്ലോ കവറോടെ പൊട്ടി ഒട്ടി പൊട്ടിക്കാതെ വെച്ചോണ്ടിരിക്കല്ലേ ഹലോ ആ ബില്ല് ബില്ലും കയ്യിലുണ്ട് ആ ബില്ലുണ്ടെങ്കിലേ തരാൻ പറ്റുകയുള്ളു ചേച്ചി അതുവല്ല ഇത്രയും ദിവസമായതല്ലേ ഒരാഴ്ച്ച എന്നല്ലെ പറഞ്ഞത് സാധനം തരുന്നതെന്ന് കുഴപ്പമില്ല ആ അതിൻ്റെ വരും വില വിളക്കുള്ള സാധനം തരാം അത് ആ പൊട്ടിച്ചില്ല എങ്കിൽ ഉറപ്പായിട്ടും തരാം തരുന്നതായിരിക്കും ആ ശരി ശരി ശരി അത് അത് പൊട്ടിച്ചിട്ടില്ല ആ ആ ശരി ചേച്ചി കുഴപ്പമില്ല കുഴപ്പമില്ല ഞാനിന്ന് ഇന്ന് കൗണ്ടറില് ഞാനുണ്ടായിരിക്കില്ല പുള്ളിക്കാരൻ വരുമ്പം പറഞ്ഞാൽ മതി ഞാ ഞാന് എന്നെ എന്നെ വിളിച്ചിരുന്നു കാര്യങ്ങള് പറഞ്ഞിരുന്നു ഒന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ തീർച്ചയായിട്ടും അത് ശരിയാക്കി ഓ കുഴപ്പമില്ല കുഴപ്പമില്ല അത് മാറ്റി തന്നേക്കാം കേട്ടോ ആ ഓക്കെ ഓക്കെ വേറെന്തേലും ഉണ്ടോ ശരി ശരി ഓ ഓക്കെ താങ്ക്യൂ